ഹലോ ഹലോ ഹലോ ഹലോ ഡോക്ടറാണോ ഞാൻ നെടുമങ്ങാടു നിന്ന് വിളിക്കുക ആണ് ആ എന്നിട്ട് ആ ഇത് നല്ല സുഖം ഇല്ല ഡോക്ടർ ആ എനിക്ക് തണുപ്പ് ഉണ്ട് തലവേദന ജലദോഷം തൊണ്ടവേദന എല്ലാം ഉണ്ട് ശരീരവേദന രണ്ട് ദിവസം ആയി രണ്ട് മൂന്ന് ദിവസം ആയി തുടങ്ങിയിട്ട് ആ പാരസെറ്റമോൾ കഴിച്ചിരുന്നു ആ ഗുളിക കഴിച്ചതുകൊണ്ട് വന്നില്ല അതിൽ കുറയും എന്ന് വിചാരിച്ചു കുറഞ്ഞില്ല അതാണ് ഞാൻ ഡോക്ടറെ വിളിച്ചത് ആ ആ

ആ ആ ആ ആ

ആ ശരി ഡോക്ടർ ആവി ഒക്കെ ആവി ഒക്കെ പിടിച്ച് നോക്കി പക്ഷെ അതിലൊന്നും എനിക്ക് കുറഞ്ഞില്ല എന്നാലും ഒന്നും കൂടിയൊക്കെ

ഞാൻ ആവി ആവി പിടിച്ചത് കൃഷ്ണതുളസി ഇലയും ആ ആടലോടകത്തിൻ്റെ ഇല അങ്ങനെ അത് രണ്ടും കൂടി ഇട്ടിട്ട് ഉണ്ടായിരുന്ന് അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ടാണ് ഞാൻ ആവി പിടിച്ചത് വിക്സും കൂടെ ഇട്ട് വിക്സ് കുറച്ച് വിക്സും കൂടി ഇട്ട് ആ അതും ആ ആ ശരി ഡോക്ടർ